കോഴിക്കോട് ജില്ലയിൽ ആഘോഷിക്കുന്ന പ്രധാന പരിപാടികൾ എന്ന് പറയുന്നത് ഉത്സവം പള്ളിപ്പെരുന്നാൾ ക്രിസ്മസ് ന്യൂ ഇയർ പിന്നെ ഓണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ആഘോഷിക്കുന്നത് ഓണം തന്നെയാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവമായി ആഘോഷിക്കുന്നു എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുന്നതിനും കളിക്കുന്നതിനും ഞാനും എന്റെ കുടുംബാംഗങ്ങളും ശ്രമിക്കാറുണ്ട് ഓണത്തിന് പൂക്കള മത്സരം വടംവലി കസേരകളി സുന്ദരിക്ക് പൊട്ട് കുത്തുക അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുമുണ്ട് പിന്നെ കരകൗശല മേളകളുണ്ട് കോഴിക്കോട് പൂക്കള മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് ദേശീയ സമ്മേളനങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവയെല്ലാം വളരെയേറെ നല്ല രീതിയിൽ സാംസ്കാരിക ഉത്സവങ്ങളായി ഞങ്ങൾ ആഘോഷിക്കുന്നു